ഞാനൊരു മലഞ്ചരക്ക് കൃഷിക്കാരനാണ് മലഞ്ചരക്ക് സാധനങ്ങളാണ് എൻ്റെ എനിക്ക് വിൽക്കുവാനുള്ളത് അത് ഞാൻ വിൽക്കുന്ന പല അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് വിലയുടെ പിന്നെ വരവൊക്കെ അനുസരിച്ചാണ് ഞാൻ ഇത് ക്രയവിക്രയം ചെയ്യുന്നത് അത് ചില ഉൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് കച്ചവട കടയിൽ കൊണ്ട് കൊടുക്കും ചിലർ ഇങ്ങനെ വീടുകളിലൊക്കടെ വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരെ ഒരു വരുമാന മാർഗ്ഗമാണ് അത് ചില ആൾക്കാർ ഇങ്ങനെ അമി ഒത്തിരി വില അന്തരത്തിൽ വിപമാണിക്കാനണ്ട് നോക്കുന്നു നോക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഞാനത് അവർക്ക് കൊടുക്കാതെ വിലനിലവാരം മറ്റുള്ള അ്വ്ടൊക്കെ അന്വേഷിച്ച് ഏകദേശം ഒരു അടുത്തൊരു വില കിടുന്നുണ്ടങ്കിൽ അവർക്കൊരു ഉപജീവന മാർഗമല്ലേ എന്ന് കരുതി ഞാൻ അത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ചില ആൾക്കാർ നമ്മൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കാറുണ്ട് അതായത് നമ്മൾക്കൊന്നും വിലയെ പറ്റിയൊന്നും ധാരണ ഇല്ല അല്ലെങ്കിൽ നമ്മളെ സാധനങ്ങൾ മോശമാണ് അത് ഉൽപ്പന്നത്തിന് വലിയ ഡിമ്മാ വില ഉൽപ്പന്നം അമിതമായി ഉൽപാദനം ഉള്ളത് കൊണ്ട് വിലക്കുറവാണ് അതൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ഉൽപ്പന്നം ഇതിൻ്റെ വില ഇടിച്ച് അടുക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് നമുക്ക് വിപണിയിലും മറ്റ് സാഹചര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം വീക്ഷിക്കുന്നത് കൊണ്ട് അങ്ങനെ നമ്മളെയങ്ങ് അങ്ങ് ചൂഷണം ചെയ്യാനായിട്ടൊന്നും നമ്മൾ പെട്ടന്നൊന്നും നിന്ന് കൊടുക്കുകയില്ല പരമാവധി വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർ ചെറിയ കച്ചവടം ചെറിയ കച്ചവടക്കാർ അവര് അവർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എന്നതുകൊണ്ട് അവർക്കും ചെറിയ വില വലിയ കാര്യമായ വ്യത്യാസം ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചില കച്ചവടക്കാരിലും നമ്മളുമായിട്ട് വളരെയേറെ അടുത്ത് അടുപ്പമുള്ള നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും ഞാനത് കൊടുക്കാറുണ്ട് എനിക്ക് ഏലം കുരുമുളക് കാപ്പി കൊക്കോ മുതലായ ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നത് അതിൽ അതിൻ്റെ സാഹചര്യമനുസരിച്ച് വിലയുടെ സാഹചര്യമനുസരിച്ച് നമ്മള് സ്റ്റോക്ക് ചെയ്ത് കൊണ്ട് ചില ഉൽപന്നങ്ങൾ സൂക്ഷി ച്ച് സംസ്കരിച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് വില കൂടുന്ന സമയം നോക്കിയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അത് വില കൂടുന്നതൊക്കെ നമ്മൾ നിരം ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ചില കച്ചവടക്കാർ നമ്മളിൽനിന്ന് വളരെ വില കുറച്ച് തരാനായിട്ട് ചൂഷണം ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മളത് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വില നിലവാരം അറിഞ്ഞ് അല്ലെങ്കിൽ ടി വി ചാനലൊക്കെ അന്നന്നത്തെ വില പ്രദർശിപ്പിക്കാറുണ്ട് അതൊക്കെ നോക്കി ആണ് നമ്മൾ വിലയുടെ അന്നന്നത്തെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ആണ് നമ്മളത് കച്ചവടം നടത്തുന്നത് അതിൽ നമുക്ക് അനുയോജ്യമായൊരു നമുക്ക് പ്രതീക്ഷിക്കുന്ന വില കിട്ടിയില്ലെങ്കിൽ നമ്മളാ ഉത്പ്പന്നം വേറെ കച്ചവടക്കാരെ അന്വേഷിച്ച് അവരുടെ അവരെ ബന്ധപ്പെട്ട് ആണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് ആൾക്കാരെ സഹായിക്കുകയും ചെയ്യും അതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ട് അതിൽനിന്ന് നമ്മൾ പ്രതിരോധമാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും